എനിക്ക് പഠിക്കാനിഷ്ടം വയലിൻ ആണ് പക്ഷേ ഞാൻ പഠിച്ചിട്ടില്ല എനിക്ക് പഠിക്കാൻ അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അന്നത്തെ കാലത്തൊന്നും എൻ്റെ കൈയ്യിലങ്ങനെ പൈസയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പഠിക്കാനൊന്നും പക്ഷേ എനിക്കതിയായ ആഗ്രഹമുണ്ടായിരുന്നു പഠിക്കണം എന്ന് ഇപ്പോഴും എനിക്ക് വയലിൻ ഒക്കെ ഇങ്ങനെ വയലിൻ്റെ സൗണ്ട് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഫോണിൽ റിംഗ്ടോൺ വരെ എൻ്റെ വയലിൻ്റെയാണ് പിന്നെ രാവിലെ അലാറം വയ്ക്കുന്നതും ഞാൻ വയലിൻ്റെയാണ് അപ്പം എന്താണെന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ബാ ബാലഭാസ്കർ ഇല്ലേ അവർ മരിച്ചപ്പം പിന്നെയാണ് അതായത് അവർ അവരുടെ വയലിൻ ആണ് ഞാൻ ഒരുപാട് കേൾക്കാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുമ്പം തന്നെ നമ്മൾ ഉറങ്ങിപ്പോവും അങ്ങനെയൊരു അവസ്ഥയിലൊരു വയലിൻ ആണ് പക്ഷേ അയാൾ മരിച്ചുപോയി ആ മരിച്ചപ്പം എനിക്ക് ഭയങ്കര സങ്ക സങ്കടമായിരുന്നു പിന്നെ ഞാനാ ചേട്ടൻ്റെ അതായത് ബാ ബാലഭാസ്കറിൻ്റെ ഒരുപാട് യൂട്യൂബിലൊക്കെ സർച്ച് ചെയ്തിട്ട് ഒരുപാട് വയലിൻ്റെ ഇത് കേൾക്കാറുണ്ട് പിന്നെ എനിക്ക് അടി പഠിക്കാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട് പക്ഷേ എനിക്ക് ഇതുവരെ പഠിക്കാൻ പറ്റിയിട്ടില്ല എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ എനിക്കെന്തായാലും പഠിക്കണം എന്ന് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല കാരണം നമ്മളതൊക്കെ ആദ്യമേ പഠിച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് കുറേ ഇതിലെത്താൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഇനിയിപ്പോൾ പഠിക്കണമെങ്കിൽ ഒന്നിൽ നിന്ന് തുടങ്ങേണ്ടേ